എനിക്ക് ഏറ്റവും പാട്ട് ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ അല്ലെങ്കിൽ പാട്ടുകാരൻ രണ്ടും ചെയ്യാറുണ്ട് അനിരുദ്ധാണ് അനിരുദ്ധെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സംഗീത സംവിധായകനാണ് കാരണം എന്നു വച്ച് കഴിഞ്ഞാൽ മൂപ്പർ ചെയ്യുന്ന ഓരോ വർക്കും ഭയങ്കര വ്യത്യസ്തവും അതുപോലെതന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുമാണ് അവരെ ഇഷ്ടപ്പെടാൻ കാരണം എന്നു വച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം അവർ കഴിഞ്ഞ പ്രാവിശ്യം ജയിലർ സിനിമയിൽ ഹുക്കും എന്നു പറഞ്ഞ പാട്ടൊക്കെ അവതരിപ്പിച്ച രീതിയും അതിൽ ഉപയോഗിച്ച താളം ബീറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ആൾക്കാർക്ക് ഒന്നുകൂടി ഹരം കൊള്ളിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു ഓരോ സിനിമയിലും ഇപ്പോൾ അനിരുദ്ധ് മ്യൂസിക് അല്ലെങ്കിൽ സംവിധയക സംഗീത സംവിധയകൻ അനിരുദ്ധാണെന്നു പറയുമ്പോൾത്തന്നെ ആ അവർക്ക് ഒരു പാട്ടിൻ്റെ ആ രീതി അല്ലെങ്കിൽ അളവ് അല്ലെങ്കിൽ അത് നമുക്ക് തരുന്നൊരു ഹരം എത്രയാണെന്ന് ആൾക്കെന്നു ഊഹിച്ച് നോക്കാൻ പറ്റും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് മൂപ്പരെ കഴിവെന്നു പറയുന്നത് കുറച്ചുകൂടി എല്ലാവരിൽ നിന്നും വ്യത്യസ്തതയുള്ള പരിപാടിയാണ് ചെയ്തു തരുന്ന രീതിയും അത് അവതരിപ്പിക്കുന്നതും യാതൊരു മടിയും കൂടാതെ ചെയ്യുന്ന ഒരാളാണ് പണ്ടുമുതലേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ വച്ചു കഴിഞ്ഞാൽ ഓരോ ഓരോ പാട്ടിന് അദ്ദേഹം തരുന്ന ഒരു വെറൈറ്റി തരത്തിലുള്ളൊരു എഫേർട്ടുകൾ ആ ഒരു കഠിനാധ്വാനം നമുക്ക് ഏറെക്കുറേ ഇഷ്ടപ്പെടാൻ കാരണം അതുപോലെതന്നെ മൂപ്പരെ പ്രണയ ഗാനങ്ങളും അങ്ങനത്തെ രീതിയിലുള്ള ഗാനങ്ങളൊക്കെ ഭയങ്കര ഒന്നുകൂടിയും ആ ഒരു ഫീലിലേയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേയ്ക്ക് നമ്മൾ മാറി വരാൻ കുറച്ചുകൂടി സഹായിക്കുന്ന ഒരു ഒരു പാട്ടാണ് മൂപ്പരുടെ അനിരുദ്ധ് പാടിയ മിക്ക പാട്ടുകളും നല്ല ഭയങ്കര ഹിറ്റാണ് അത് ഇന്നും മലയാളികളും ആൾക്കാരും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ് ഇതിന് മുൻപ്പ് ഇപ്പോൾ ഇറങ്ങുന്ന ഏതൊരു പട്ടായിക്കോട്ടെ തെന്നിന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഇന്ത്യ ഒട്ടാകെ ഏതൊരു ഹിന്ദി സിനിമയിലും മലയാളം സിനിമയിലും എവിടെ ആണെങ്കിലും അനിരുദ്ധ് മ്യൂസിക്കൽ ഇപ്പോൾ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു